നമുക്കിവിടെ വെറ്റിനറി ഡോക്ടർമാർ ഇഷ്ടംപോലെയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടേ തന്നെ ഇഷ്ടം പോലെ പ്രൊഫസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടുതലായിട്ടും നല്ലരീതിയിലുള്ള നല്ല രീതിയിൽ പശുക്കൾക്ക് പശുക്കളെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ഇപ്പോൾ പല രീതിയിലുള്ള മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പട്ടികൾ അങ്ങനെ ആട് എരുമ അങ്ങനത്തെ പല രീതിയിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഡോക്ട്ർ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജ് ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അവർക്ക് നല്ലരീതിയിലുള്ള അതായത് ഇപ്പം അതിന് എന്താണ് അസുഖം അത് മനസ്സിലാക്കിയിട്ട് അതിന് മരുന്ന് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം പട്ടിയാണെങ്കിൽ നമ്മൾ പട്ടീനെ നമ്മൾ മൃഗശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ വെക്കും അതിനെന്താണോ പ്രശ്നം അവിടെ നിന്ന് നോക്കിയിട്ട് റെഡിയാക്കി തരും ഇപ്പം ചിലതിൻ്റെയൊക്കെ വയറ് കഴുകേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരേണ്ടി ഉണ്ടാകും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചില പട്ടികളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിന്നിട്ട് വയറ്റിൽ കുടുങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അത് നമ്മൾ കൂടുതലായിട്ടും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതിനുള്ള ആൾക്കാർ സർജ അതായത് വെറ്റിനറി സർജന്മാർ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ അവിടെ ഉണ്ട് സർജന്മാരായിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൃഗങ്ങളെ നമ്മൾ കൂടുതലായിട്ടും പരിശോധിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സർജറിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ് പറ്റും അപ്പം നമ്മൾ കൂടുതലായിട്ടും പൈസ നല്ല രീതിയിൽ കൊടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നമ്മൾ പൈസ കൊടുക്കാൻ മടി കാണിച്ച് കഴിഞ്ഞാൽ മൃഗത്തിൻറെ ജീവൻ തന്നെ നഷ്ടപെടാനും കാരണമാകും